വിവാഹ വേളകൾ വേളകളിൽ ആളുകൾ ഈ വിവാഹം വിവാഹം കഴിക്കുന്ന സ്ത്രീക്കും പുരുഷനും

ഇപ്പം ഒരു വിവാഹം കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റോം വലിയ സമ്മാനം എന്നു പറഞ്ഞാൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയാണ് അതക്കുള്ളൊരുച്ച് വേറൊരു സമ്മാനം ഇതിനകത്ത് വേറെ ഇല്ല എന്നിരുന്നാലും ആളുകൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയുണ്ടായി ഇപ്പോൾ മ പല ആളുകളും അവരുടെ കഴിവന് അനുസരിച്ച് അവരെ സാമ്പത്തിക ഇതനുസരിച്ച് സാമ്പത്തിക ഭ സാമ്പത്തിക നില അനുസരിച്ച് ചില വ്യക്തികൾ കാറ് കൊടുക്കാറുണ്ട് ചിലർ പ്രീമിയം കാറുകൾ കൊടുക്കാറുണ്ട് ചില അതി അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ലെക്ഷ്വറീസായിട്ടുള്ള കാറുകൾ അപ്പാർട്ട്മെൻറ്റുകൾ അല്ലെ ക്യാ ഇപ്പോൾ ക്യാഷ് ക്യാഷായിട്ടുള്ള സമ്മാനം ഗിഫ്റ്റുകൾ മറ്റു പല പല വ്യക്തികൾ ഗോൾഡ് കൊടുക്കാറുണ്ട് ഇത് ഇത് സ്ത്രീക്കും പുരുഷനും ഇത് ഇതുപോലെ തന്നെ സമ്മാനങ്ങളിൽ കല്യാണം കഴിക്കാൻ പോലും സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള അത് പല വെറൈറ്റി പെട്ട അല്ലെ പല വ്യക്തികൾ ഇപ്പം കുടുംബത്തിൽ തന്നെ പെട്ട അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരിമാരോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളോ ഇവർ ആ ആര് അങ്ങനെ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇങ്ങനെ സമ്മാനങ്ങൾ നൽകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇത് വളരെ നല്ലൊരു ഒരു ആറ്റിറ്റൂഡിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രതിഛായായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ അവരെ ഒരു സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ഒരു നമ്മൾ നമ്മൾ അവരോടുള്ള ഒരു സ്നേഹത്തിൻ്റെയും ഒരു സന്തോഷം ആ സ്നേഹത്തിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചന ഒരു ഒരു സൂചികയാണ് ഈ നമ്മൾ ഈ സ ഈ വിവാഹ വേളകളിൽ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ വ്യക്തിയോട് എത്ര മാത്രം സ്നേഹിക്കുന്നു അല്ലെ ഇഷ്ടപ്പെടുന്നു അവരോടുള്ള നമ്മുടെ എന്താ പറയ സ്നേഹത്തിൻ്റെ ഒരു ഒരു പര്യായമായിട്ട് വേണം നമുക്ക് ഇതിനെ കണക്കാക്കാം ആ വേളകളിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വീട്ടിന്ന് അച്ഛനും അമ്മയും അവർക്ക് അവർ ആ ഒരു ഓഹരി എന്ന രീതിയിൽ ഇപ്പം ഇൻഡ്യയിലും അല്ലെങ്കിൽ കേരളം പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്വർണ്ണം സ്വർണ്ണ ആഭരണങ്ങൾ കൊടുക്കുക ഇത്ര പവൻ കൊടുക്കുക അല്ലെ ഇത്ര സ്വർണത്തെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പവൻ അപ്പം ഇത്ര പവൻ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു അല്ലേ ഇത്രവരെ കൊടുക്കുന്നു എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അത് പ പണ്ട് കാലം മുതലേ ഇന്ന് നില നിന്ന് പോകുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു അതിപ്പോൾ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർ ആയാലും ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംമ്സ് ഏ ഏത് മതത്തിൽപ്പെട്ടവർ മതത്തിൽ പെട്ടവരായാലും ഈ ഒരു പ്രവണത കണ്ടു വരുന്നുണ്ട് അത് അവരോടുള്ള നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഭിംബം എന്നുള്ള എന്ന രീതിയിൽ നമുക്ക് അതിനെ കു അതിനെ കാണാവുന്നതാണ് പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഈ ഈ കസിൻസ് ഫ്രണ്ട്സ് ഇവർ മറ്റ് സ്വർണമല്ല പണമല്ല കാറല്ല മറ്റ് അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറുതായാലും വലുതായാലും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു ഒരു പ്രവണത അല്ലേ അങ്ങനെ ഒരു ഒരു ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു പ്രതിഫലം പ്രതിഫലനം നമുക്ക് അതിപ്പോൾ ചെറിയ വിവാഹം ഫങ്ഷനുകളിൽ ആയാലും വലിയ വിവാഹ ഫങ്ഷനിൽ ആയാലും നമുക്ക് ഇത് കാണാൻ പറ്റും സാധിക്കുക ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അവനെന്താണോ അല്ലെ അവളെന്താണോ ആഗ്രഹിക്കുന്നത് അത് അല്ലേ ആഗ്രഹം ഉള്ളത് അത് അവർ വിവാഹ സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇതൊരു സ്ത്രീധനമായിട്ട് വധുവിനെ എന്ത് സമ്മാനം കൊടുക്കുന്നു എന്നുള്ള ഒരു സ്ത്രീധനമായിട്ട് നമുക്ക് കാണാൻ പറ്റൂല അവരുടെ മാതാപിതാക്കൾ നൽകുന്ന ഒരു ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉപകാരമാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് സ്ത്രീധനമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കാഴ്ച്ച ഒരു കാഴ്ചപ്പാടില്ല അതിന് സ്ത്രീധനം എന്ന് പറഞ്ഞ് പറയുന്നതിൽ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അവർ അവർ ഓരോരുത്തരും അവർ അവരുടെ മക്കൾക്ക് മകൾക്ക് എന്താണോ കൊടുക്കാനുള്ളത് ആ ഒരു ഓഹരി എന്താണോ കൊടുക്കാനുള്ള വീട് അല്ലെങ്കിൽ അവരുടെ കുടുംബ സ്വത്തിൽ നിന്ന് എന്താണോ ഒരു ഓഹരി കൊടുക്കാനുള്ള അത് കൊടുക്കുന്നു അതിന് നമുക്ക് സ്ത്രീധനമായിട്ട് കാണാൻ കാണാൻ സാധിക്കയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു അഭിപ്രായം വളരെ ഓപ്പൺ മൈൻറ്റിൽ ചിന്തിക്കുന്ന യാഥാസ്ഥിതിക വെച്ച് പുലർത്തുന്ന ചില വ്യക്തികൾ ഇതിനെ പ്രതികൂലിക്കയും അനുകൂലിക്കയും ഒക്കെ ഉണ്ട് സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സ്ത്രീധനം കൊടുക്കുന്നത് ഒരു കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് അല്ലെ സ്ത്രീധനം വാങ്ങാൻ ചോദിച്ച് വാങ്ങിക്കുന്നത് ക്രിമിനല് കുറ്റമായിട്ട് ഇപ്പോൾ ഇൻഡ്യയിൽ അടുത്താണേലും നിലവിൽ വരികയുണ്ടായി കാരണം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവിടെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക ഉണ്ടായി ഉണ്ടാകുക ഉണ്ടായി അപ്പം ആ ഒരു വെളിച്ചത്തിൽ ഗെവണ്മെൻറ്റ് തന്നെ ഒരു നിയമം കൊണ്ടു വന്ന് അതിന് എതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക ഉണ്ടായി സ്ത്രീധനം ചോദിച്ച് വാങ്ങിക്കുന്നത് ക്രിമിനൽ ഒഫൻസായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് സമൂഹത്തിൽ ഇതൊരു ഒരു ഒരു വ്യവസ്ഥാവിത നിയമമായിട്ട് ഒരിടത്തും ഇല്ല പക്ഷേ ആളുകൾ പ്രാചീനകാലം മുതലേ ഇന്നും തുടർന്ന് വന്നു കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൻ ഒരു സമൂഹത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ മാത്രമല്ല ഇത് ഒരു ഒരു ഒരു ഒരു ഒരു സാമൂഹിക ജീവിതത്തിൽ എല്ലാവരും വെച്ചു പുലർത്തുന്ന ഒരു സമ്പ്രദായം എന്ന് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവർ അവർ തങ്ങളുടെ മക്കളെ മകളെ കല്യാണം കഴിച്ചയപ്പിക്കുമ്പോൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അത് അവർ അവരുടെ കാഴ്ചപ്പാടാണ് അത് ചോദിച്ച് വാങ്ങിക്കുന്നത് ഒരു ഒരു ക്രിമിനൽ ഒഫൻസാന്ന് മുമ്പ് ഞാൻ പറഞ്ഞതു പോലെ തന്നെ ഇത് കൊടുക്കുക എന്നുള്ളത് അത് ഓരോ വ്യക്തി അല്ലെങ്കിൽ ആ അച്ഛൻ്റെയും അമ്മേയുടെയും ഒരു അല്ലേ ആ ആ കുടുംബത്തിപ്പെട്ടവരുടെയോ ഒരു ആ കല്യാണം കഴിക്കപ്പെട്ടു പോകുന്ന പെൺകുട്ടിയുടെ അവളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഒരു പ്രതിഫലനമാണ് അപ്പോൾ എന്ത് ചിലരത് വധുവിന് ചിലർ സ്വർണ്ണങ്ങൾ സ്വർണ്ണം കൊടുക്കാറുണ്ട് ക്യാഷായിട്ട് കൊടുക്കാറുണ്ട് സ്വത്ത് വകകൾ കൊടുക്കാറുണ്ട് കാറുകൾ കൊടുക്കാറുണ്ട് അത് അവർ അവരുടെ കഴിവ് അനുസരിച്ച് ആഡംബര അല്ലെങ്കിൽ ലെക്ഷ്വറീസായിട്ടുള്ള കാറുകൾ പ്രീമിയം കാറുകൾ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് ഒക്കെ ക്യാ ഇപ്പോൾ ക്യാഷ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ അവർ ഒരു എന്ത് പറയുന്നത് ഒരു ഹണിമൂൺ പാക്കേജ് പോലെയുള്ള ഒരു ഒരു ട്രിപ്പ് അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഓരോരുത്തരെയും കോൺസെപ്റ്റ് പോലെ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ നിലപാടുകളും അല്ലെ സാഹചര്യങ്ങളും അനുസരിച്ച് ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായമാണ്